എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യോഗ ആരംഭിക്കണ്ടേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെറു പ്രായത്തിൽ തന്നെ യോഗ തുടങ്ങുന്നത് വളരെ നല്ലതായിരിക്കും അതായത് നമ്മൾ ഒരു നാലഞ്ച് വയസ്സ് അതായത് ചിലപ്പോൾ ഒന്നാംക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ കുട്ടികളെ ഒക്കെ യോഗയ്ക്ക് വിടുന്നത് നല്ലൊരു നല്ലൊരു ശീലമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇന്നത്തെ കാലത്ത് എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കില് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന നമ്മൾ എല്ലാം കഴിക്കുന്നത് വിഷം കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ ഈ യോഗ കാര്യങ്ങൾ ഒക്കെ ചെയ്തിട്ടുണ്ടെൽ നമുക്ക് കുറെ അസുഖങ്ങൾ ഒക്കെ കുറയും എന്ന് പറയാം ഇപ്പം തൈറോയ്ഡ് പി സി ഒ ഡി അങ്ങനെ വന്നാൽ ഒക്കെ യോഗയ്ക്ക് പോയിട്ട് എത്രയോ പേർക്ക് അതൊക്കെ കുറഞ്ഞത് കുറഞ്ഞവര് ഒരുപാട് ഉണ്ട് അപ്പോൾ കുട്ടികള് ചെറുപ്പത്തിൽ തന്നെ യോഗയ്ക്ക് ഒക്കെ വി വിട്ടാൽ നല്ലതാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ എന്ന് വെച്ചിട്ടുണ്ടേൽ നമുക്ക് മനസ്സ് ഇപ്പോഴും ശാന്തമായിരിക്കും മെയിൻ ആയിട്ട് മനസ്സ് ശാന്തമായിരിക്കും അതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടേൽ അത് തന്നെ വലിയ ഒരു ഗുണമാണ് കുട്ടികൾക്ക് ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടേൽ ഇപ്പോൾ ഒക്കെ ഫോണിൻ്റെ കാലമല്ലേ അതിൻ്റെ ഇടയ്ക്ക് ഒരു റിലാക്സേഷൻ ഒക്കെ നല്ലതാണ് പിന്നെ അതുപോലെ നമുക്ക് ഗർഭിണികൾക്ക് അതായത് പ്രസവിച്ച് കഴിഞ്ഞിട്ടുണ്ടെൽ വയറ് കുറയും പിന്നെ തടികുറയും നമുക്ക് മനസ്സിന് ഒരു റിലാക്സേഷൻ കിട്ടും അപ്പോൾ യോഗ എന്ത് എന്ത് കൊണ്ടും യോഗ ചെയ്യുന്നത് നല്ലതാണ്